അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതും സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ നാട്ടിലുള്ള പോറാട്ടം കളി ഇപ്പോൾ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഈ ഒരു കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളു നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് കലാ വേദികൾ പങ്കിട്ട ഒരു കലാരൂപമാണ് പൊറാട്ട് നാടകം ഇപ്പോൾ അത് അന്യം നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ആരും സംരക്ഷിക്കുന്നില്ല നമ്മളുടെ യുവ തലമുറയൊ ന്നും പോറാട്ട് നാടകത്തെക്കുറിച്ചോ അല്ലങ്കിൽ പൊറാട്ടം കളിയെക്കുറിച്ചൊന്നും അറിയുകയോ അതിനോട് ഒരു താല്പര്യം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ വരും തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനൊരു ഒരു കലാരൂപം ഉണ്ടായിരുന്നുവെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒരുപാട് കോമഡിയും ഹാസ്യവും നിറഞ്ഞ ഒരു കലാരൂപമാണ് പൊറാട്ട് നാടകം അവർ ഒരേ സമയം സംസാരിക്കുകയും അല്ല ആ സംസാരിക്കുകയും അതോടൊപ്പം കളിക്കുകയും ചെയ്യുന്ന ഒരു ഒരിതാണ് പൊറാട്ട് നാടകം അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു എൻ്റർറ്റൈൻമെന്റായി ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇത് അപ്പോൾ നമ്മളിതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരുപാട് പേർക്ക് ഒരു എൻ്റർറ്റൈൻമെന്റായിട്ട് ഇത് ഇനിയും കാണാൻ പറ്റും നമ്മളുടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകും നമ്മളുടെ ഇപ്പോഴത്തെ തലമുറ ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് ഇതിന് കാണികളൊക്കെ കുറവായി വരുവാണ് അപ്പോൾ കാണണമെന്ന് ആഗ്രഹം ഉള്ളവർക്കും പരിപാടി കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമ്മളൊക്കെ സംരക്ഷിച്ച് ഒരു കൂട്ടായ്മ്മയൊക്കെ ഉണ്ടാക്കി ഓരോ പരിപാടികളൊക്കെ അവർക്ക് കൊടുക്കണം ഇപ്പോൾ ഉത്സവങ്ങളിലാണെങ്കിലും പൊതു പരിപാടികളിലാണെങ്കിലും ഇവർക്ക് വേണ്ടിയൊരു പ്രത്യേകം അവസരം നൽകണം